ഹലോ ഇത് ശ്രീകൃഷ്ണ ഹോട്ടൽ അല്ലേ ആ ശരി ഞാൻ ഒരു ഓർഡർ തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഇപ്പോൾ ബിരിയാണി റെഡി ആണോ ആ ശരി അങ്ങനെ ആണെങ്കിൽ രണ്ട് ബിരിയാണി ഫുൾ പാഴ്സൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് അനാർ ജ്യൂസ് എടുത്തോളു മധുരം ഇടേണ്ട പിന്നെ ഇവിടെ മീനിൻ്റെ എന്തൊക്കെയാണുള്ളത് ഓക്കേ അങ്ങനെ ആണെങ്കിൽ രണ്ട് കരിമീൻ പൊള്ളിച്ചത് എടുത്തോളൂ ആ പിന്നെ വേറെ വേറെ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഓ പോത്ത് പോത്ത് വരട്ടിയതാണല്ലേ ഈ പോത്ത് വരട്ടിയതിന്റെ വില എത്രയാണ് ഓ പ്ലേറ്റിന് നൂറ്റമ്പതേ വരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ട് പോത്ത് വരട്ടിയതും കൂടി എടുത്തോളൂ ഇത്ര ഇത്ര മതി ആ ഇത് എൻ്റെ സ്ഥലം വരുന്നതെന്ന് വച്ചാൽ മണ്ണാർക്കാട് അങ്കനവാടി ഇല്ലേ അതിൻ്റെ തൊട്ട് ബാക്കിലത്തെ വീടാണ് അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് വേണം പെട്ടെന്ന് കിട്ടില്ലേ ആ ശരി ഒരു ഒന്ന് മുപ്പത്തിനുള്ളിൽ എങ്കിലും എത്തി ചേരാൻ പറ്റുമെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരുന്നു ഓ എത്തിക്കാൻ പറ്റും ഓക്കേ നന്ദിയുണ്ട് ഓക്കേ എന്നാൽ പെട്ടെന്ന് എത്തിച്ചോളൂ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട്